കേരളത്തിലെ സംസ്കാരം വളരെ അറിയപ്പെട്ട ഒന്നാണ് ഇന്നത്തെ സമൂഹത്തിൽ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഉന്നതിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരും നയിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെ വച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ അധികം നല്ലൊരു സംസ്കാരം ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉള്ളത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒത്തൊരുമ ഇന്നത്തെക്കാലത്ത് ഓരോ നമ്മളിൽ പലർക്കും ഒത്തൊരുമ എന്ന് പറയുന്ന കാര്യം ഇല്ല പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല അത് നേരെ തിരിച്ചാണ് എല്ലാവർക്കും ഒത്തൊരുമ എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് രണ്ടായിരത്തിപ്പതിനെട്ടിലെ കേരളത്തിലെ പ്രളയമാണ് ഈ പ്രളയം ഉണ്ടായ സമയത്ത് ഓരോ ആളുകളും വളരെ ഒത്തൊരുമയോടെയാണ് അത് മറികടന്നത് ഈ പ്രളയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പലർക്കും ഭീതി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കുറെ ജീവനുകൾ നഷ്ടപ്പെട്ടു കുറെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാൽ അന്ന് മനുഷ്യർ നേടിയെടുത്തത് എന്നാൽ അന്ന് മനുഷ്യർ നേടിയെടുത്തത് ഈ ഒത്തൊരുമയാണ് അന്ന് നമ്മൾക്ക് ഈ ഒത്തൊരുമ ഇല്ലായിരുന്നു എങ്കിൽ കേരളം വലിയ ഒരു നഷ്ടം തന്നെ കാണേണ്ടി വന്നേനെ എന്നാൽ മനുഷ്യർ അന്ന് ഒത്തൊരുമയോടെ നിന്നതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു അന്ന് മത്സ്യ തൊഴിലാളികളും മറ്റ് ചിലരും ഈ ഒത്തൊരുമയോടെ നിന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് കുറേപ്പേരെ രക്ഷിക്കാൻ ഒക്കെ കഴിഞ്ഞത് അന്ന് ഈ ഒത്തൊരുമ ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് ഈ ഒരു സാഹചര്യം ഇതിലും വളരെ മോശമായി അനുഭവിക്കേണ്ടി വന്നനെ